ഹലോ കൈതക്കൽ അക്ഷയ കേന്ദ്രമല്ലേ എൻ്റെ കഴിഞ്ഞ ദിവസം അക്ഷയ എവിടെ നിന്നോ എൻ്റെ പാൻ കാർഡ് നഷ്ടപ്പെട്ടു ഇനി പാൻ കാർഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആവശ്യം ആധാർ കാർഡ് വേണോ എസ് എസ് എൽ സി ബുക്ക് വേണോ എന്തൊക്കെ ആവശ്യമായ സാധനങ്ങൾ ഒരു പാൻ കാർഡ് എടുക്കുന്നതിനുവേണ്ടി ആവശ്യമാണ് എത്ര പേയാവും ഇത് ചെയ്ത് കഴിയുന്നതിനനുസരിച്ച് എത്ര പൈസയാകും എൻ്റെ പാൻ കാർഡ് കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടതാണ് അത് അതിൻ്റെ ഡൂപ്ലിക്കറ്റോ എങ്ങനെയാണിതിന് നമുക്ക് എടുക്കാൻ കഴിയുക പുതിയതൊരണ്ണം എടുക്കാൻ വേണ്ടി സാധിക്കുമോ അല്ലെങ്കിൽ എന്ത് ഡൂപ്ലിക്കേറ്റാണോ എടുക്കാൻ സാധിക്കുക എന്നാണ് ഇനിയൊരു പാൻ കാർഡ് എടുക്കുന്നതിനുള്ളൊരു പോംവഴി എന്താണെന്ന് താങ്കളൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുമായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എനിക്കിപ്പോൾ പാൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് ഫിഫ്റ്റീൻ തൗസൻ്റ് എബോവുള്ള പേയ്മെൻ്റ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് വളരെയധികം സിറ്റുവേഷനിൽ നിൽക്കുന്നൊരു മൊമൻ്റാണ് അപ്പോൾ ഇനിയൊരു ഡൂപ്ലിക്കേറ്റ് ഓർ നല്ലത് എടുക്കുന്നതിന് ഒരു പാൻ കാാർഡ് എടുക്കുന്നതിനുവേണ്ടി ഞാനെന്താണ് ഇനി ചെയ്യേണ്ടതെന്നു പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു